ഞാൻ നമ്മുടെ തിങ്കളാഴ്ച ദിവസം കോട്ടയത്തുനിന്നു മൈസൂർ പോകുന്ന കോട്ടയം മൈസൂർ സ്പെഷ്യലിൻ്റെ സമയം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അത് കോട്ടയത്തുനിന്ന് രാത്രി എട്ടു മണിക്കല്ലേ അത് എത്ര മണിയാവുമ്പോള് മൈസൂരിലെത്തും അതുമല്ല ഇതിൻ്റെ തേഡേസിയുടെ ചാർജ് എങ്ങനെയാണെന്നുകൂടെ അറിയാൻ വേണ്ടിയാരുന്നു ഞാനീ വിളിക്കുന്നത് നിങ്ങള് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നു പറയുകയായിരുന്നെങ്കില് വളരെ നല്ലതായിരുന്നു കാരണം എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ വൈകിട്ടു തന്നെ പോകേണ്ടതാണ് ഇത് തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് വല്ലതും അവെയ്ലബിൾ ഉണ്ടോ എന്നുകൂടെ അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു